അതെ പറഞ്ഞോളൂ സർ സെവൻ സീറ്ററ് നമുക്ക് ഇന്നോവ വരുന്നുണ്ട് എർട്ടിഗ വരുന്നുണ്ട് പിന്നെ ടാവേരയും ഉണ്ട് സർ ആ ഇന്നോവ അവൈലബിലാണ് സർ ആ ഓക്കെ ആയിക്കോട്ടെ ഓ

ആ ഡ്രൈവറ് അവൈലബിളാണ് സർ ആ ഓക്കെ സർ മനസ്സിലായി നമുക്ക് അതിനുപറ്റിയ ഒരാളുണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം സർ നിങ്ങൾക്കിപ്പോൾ വണ്ടി മാത്രം വേണമെങ്കിൽ നമുക്കൊരു ടു തൗസൻറ്റ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇന്നോവക്ക് വിത്ത് ഡ്രൈവറൊറു ത്രീ തൗസൻറ്റ് ഒരു ത്രീ തൗസൻറ്റ് ടു ഫിഫ്റ്റി ആ ഒരു ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റും

ഇല്ലയില്ല ഓൾമോസ്റ്റ് നമക്കേൽ ആ ഡെസ്റ്റിനേഷനൊക്കെ കറക്റ്റ് എല്ലാ ലൊക്കേഷനിലും അറിയാവുന്നവർ തന്നെയാണ് നമ്മളതിനു വേണ്ടീട്ട് വിടുള്ളു ആ

ഇല്ല സർ നേരിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അങ്ങനെ ബുക്കിങ്ങോന്നും വേണ്ട പാ ഓൾമോസ്റ്റ് നമുക്ക് വണ്ടി ഇല്ല വണ്ടി ഇവിടുന്ന് വേറെ ഓട്ടമൊന്നും പോവാനൊന്നുമില്ല നമ്മൾ ഓൾമോസ്റ്റ് ബുക്ക് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമില് വണ്ടി ഇവിടെ അവൈലബിളായിരിക്കും സർ

ആ ഓക്കെ സാറിന് സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു തരണോ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരണോ ഓക്കെ ആ ഓക്കെ അത് ഓക്കെ സാർ അത് നമ്മൾ അറേഞ്ച് ചെയ്തുതരാം